കോഴി ഞാന് ഒരു എനിക്കൊരു അന്പതില് അന്പതില് പുറത്ത് കോഴികളുണ്ടായിരുന്നു ഞാന് കോഴി വളര്ത്തിക്കൊണ്ടിരുന്നതാണ് കോഴിക്കൂട് നന്നായിട്ട് കോഴിയുടെ കൂട് നന്നായിട്ട് കീടനാശിനികള് ഈ ഇത് ഒരു കോഴിക്കും അസുഖം ഒന്നും ഉണ്ടാകാതിരിക്കാന് വേണ്ടി മരുന്ന് തളിക്കും പിന്നെ അതുപോലെതന്നെ കോഴിക്ക് വിര ഉണ്ടാകാതിരിക്കാൻ വിര മരുന്ന് കൊടുക്കും കോഴിത്തീറ്റയാണ് കോഴിക്ക് കൊടുക്കുന്നത് ആരോഗ്യമുള്ള നല്ല ഇനത്തിൽ മുട്ടയിടുന്ന കോഴിയാണ് അത് കോഴിക്ക് പ്രതിരോധ കുത്തിവെപ്പും മൃഗാശുപത്രിയിൽ കൊണ്ടുപോയി കൊടുക്കും മൃഗാശുപത്രിയിൽ നിന്ന് ഡോക്ടറെ വിളിച്ച് വരുത്തിയിട്ട് പ്രതിരോധകുത്തിവെപ്പ് എടുക്കും പിന്നെ അതിന്റെ കോഴിക്കൂട് എല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി അതിന്റെ കാഷ്ടം എല്ലാം കുത്തി അടിച്ച് വൃത്തിയാക്കി അങ്ങനെ ഞാന് പിന്നെ അങ്ങനെ കോഴിക്കൂട് വൃത്തിയാക്കുക പിന്നെ കോഴിയുടെ മരുന്ന് കൊടുക്കുക പ്രതിരോധ മരുന്ന് കൊടുക്കുക പിന്നെ കോഴിയുടെ രണ്ടും മൂന്നും മാസം കൂടുന്ന സമയത്ത് വിരമരുന്ന് വിരമരുന്ന് കൊടുക്കുക കോഴിത്തീറ്റക്കകത്ത് വിരമരുന്ന് ചേര്ത്ത് കൊടുക്കുക കോഴിക്ക് കുടിക്കുന്ന വെള്ളം കോഴിക്ക് കുടിക്കാനുള്ള വെള്ളത്തിനകത്ത് പിന്നെ പൊട്ടാസ്യം പെര്മാംഗനേറ്റ് ഇട്ടിട്ട് വിരമരുന്നിട്ട് കൊടുവിര ഗുളികയിട്ട് കൊടുക്കുക അങ്ങനൊക്കെയാണ്